ആശയ വിനിമയ ഉപാധിയാണ് ഭാഷ അതുമൂലം എത്ര തരത്തിലുള്ള ഭാഷകൾ പഠിച്ചാലും അത് കൂടുതൽ നല്ലതായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വിദ്യാർത്ഥികൾ എത്ര ഭാഷ പഠിച്ചാലും അത് നല്ലതാണ് സാധാരണയായി ഇന്ന് സ്കൂളുകളിൽ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് സംസ്കൃതം എന്നീ ഭാഷകൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ് സംസ്കൃതം മൃതഭാഷയാണെങ്കിലും അതും ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദി ദേശീയ ഭാഷയാണ് ആ ഭാഷ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പോകാനും അവരുടെ സംസ്കാരമെന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും ജോലിയാണെങ്കിലും അവിടെപ്പോയി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല അതുപോലെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുട്ടികളെ മനസ്സിലാക്കണം മറ്റു രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഇംഗ്ലീഷ് ആണ് കൂടുതലായി അവർ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കി എടുക്കണം മാതൃഭാഷ മലയാളമാണ് ആണെങ്കിലും ആ കൂട്ടത്തിൽത്തന്നെ നമ്മൾ മറ്റു ഭാഷകളും പഠിച്ചിരിക്കണം അത് നമ്മുടെ ജീവിതവിജയത്തിന് കാരണമായിത്തീരാറുണ്ട് പ്രാധാന്യം മലയാള ഭാഷയ്ക്ക് തന്നെയാണ് അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എങ്കിലും മറ്റു ഭാഷകൾ പഠിക്കുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും ചുമതലയാണ് ഒരു കുട്ടി ജനിച്ച് കഴിയുമ്പോൾ തന്നെ സ്വന്തം മാതൃഭാഷ സ്വയം മനസ്സിലാക്കുന്നു ആ കൂട്ടത്തിൽത്തന്നെ നമ്മൾ മറ്റു ഭാഷയും മാതാപിതാക്കൾ പഠിപ്പിക്കാൻ നോക്കേണ്ടതാണ് പ്രധാനമായും കാർട്ടൂണുകളിലും ഹിന്ദി ഇംഗ്ലീഷ് കാർട്ടൂണുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്നത് മനസ്സിലാവുകയും അത് സായത്തമാക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ സ്കൂളുകളിൽ ഈ ഭാഷയുടെ പഠനവും കുട്ടികൾക്ക് ഭാഷകൾ അനായാസമായി സംസാരിക്കാൻ കാരണമായിത്തീരാറുണ്ട് മലയാളമാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മലയാളികളായ നമ്മളെല്ലാം നന്നായി മലയാളം സംസാരിക്കുമ്പോൾ മറ്റു ഭാഷകൾ പഠിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ നന്നായി മറ്റു ഭാഷകൾ സംസാരിക്കാൻ പഠിക്കും ഇന്ന് ജോലി സാധ്യത കൂടുതൽ വിദേശ രാജ്യങ്ങളിലായതിനാൽ മറ്റു ഭാഷകളും എന്താണെന്ന് അവർ മനസ്സിലാക്കണം ഇന്നത്തെ ഈ സമൂഹത്തിൽ മറ്റു ജർമ്മൻ

അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ സായത്തമാക്കിയാൽ അവർക്ക് അനായസമായി ഏതു ഭാഷയും കൈകാര്യം ചെയ്യാൻ സാധിക്കും അത് ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ മാതൃഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ മറ്റു ഭാഷകൾക്കും കൊടുത്ത് അതും പഠിക്കാൻ തയ്യാറാകണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് മുന്നോട്ടുപോകാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണം മാതൃഭാഷ ഇംഗ്ലീഷ് മീഡിയങ്ങൾ കൂടുതലായി വന്നപ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥയിലേക്കും ഇടയ്ക്ക് വന്നു ആ മാതൃഭാഷയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭാഷാപഠനമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മാതൃഭാഷ എപ്പോഴും നമ്മുടെ പെറ്റമ്മ തന്നെയാണ് മറ്റുള്ള ഭാഷകൾ ധാത്രിമാരാണ് ഇത് വള്ളത്തോളിൻ്റെ വളരെ പ്രശസ്തമായ കവിതയിലെ വരികളാണ് അത് മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രാത് മാതൃഭാഷയ്ക്കും പ്രാധാന്യം കൊടുക്കണം കൂടാതെ തന്നെ മറ്റുള്ള ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ ഭാഷകൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം കുട്ടികളുടെ ജോലി സാധ്യതയ്ക്ക് അത് വളരെയേറെ പ്രയോജനകരമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ ഭാഷകൾ മനസ്സിലാക്കുന്നതുമൂലം കൂടുതൽ സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ ആചാരങ്ങളും രീതികളും മനസ്സിലാക്കുന്നതിനും സാധിക്കും എന്നുള്ള കാര്യംകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മളെല്ലാവരും മറ്റു ഭാഷകൾ പഠിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്